ഹലോ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് അതായത് എന്താ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ക്യാഷ് തരില്ല കാരണം ക്യൂബ് ബുക്ക് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര വാടക കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർ അവരായിട്ട് ഞാൻ സംസാരിച്ചതാണ് നൂറ്റി അൻപത് രൂപയായിരുന്നു അവർ പറഞ്ഞ ക്യാഷ് ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇരുന്നൂറ് രൂപ വേണം അത് ശരിയായ നടപടിയാണോ എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ഈ പറയുന്നത് അപ്പം അല്ലെങ്കിൽ ഇനി എന്താ നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ അധിക ക്യാഷ് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഏജൻസിയോട് പരാതിപ്പെടേണ്ടി വരും നിങ്ങൾ ഈ നിങ്ങൾ എനിക്കിത് പോലെ വെറുതെ ഉണ്ടാവുന്നതല്ല പൈസയും കാര്യങ്ങളൊക്കെ അത് ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ആ ഒരു കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ജീവിച്ച് പോകുന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങളെ ക്യാഷുമായി അതായത് ഞങ്ങളെ പൈസയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഈ രീതിയിൽ പെരുമാറുന്നത് ശരിയല്ല കേട്ടോ കാരണം നമ്മൾ ഏജൻസിക്ക് വേണ്ടി നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എമൗണ്ട് അവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഈ കോലത്തിൽ കാണിച്ചാൽ ശരിയാകില്ല